ഹലോ കെ വൈ സി അപ്ഡേഷനു വേണ്ടിയിട്ടു വിളിക്കണതാണു കെട്ടോ താങ്കളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോള് അതിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോള് അതിൻ്റെ പ്രൊസീജേഴ്സിന് വേണ്ടിയിട്ടു കെട്ടോ ഞാനിപ്പോള് വിളിച്ചത് അപ്പോള് അതിൻ്റെ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ നിങ്ങളുടെ പേരു കൃത്യമായിട്ടൊന്നു പറയേണ്ടതുണ്ട് കെട്ടോ അതഴിഞ്ഞാൽ ഒരു വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ പാൻ കാർഡും അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡും വെരിഫൈ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇവിടുന്നൊരു കസ്റ്റമറിനെ ഞങ്ങളങ്ങോട്ടേക്കു നിങ്ങളുടെ വീട്ടിലേക്കു വിടുന്നതാണ് അപ്പോള് നിങ്ങള് എപ്പഴാണ് ഉണ്ടാവുന്നതെന്നുവച്ചാല് ഒരു ടൈം പറയേണ്ടതുണ്ട് ഇപ്പോള് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ട ആള് കൃത്യമായിട്ടു വീട്ടിലുണ്ടായിരിക്കണം നിങ്ങളുടെ സൗകര്യം പോലെ ഇരിക്കും അപ്പോള് ഞങ്ങളുടെ ഇവിടത്തെ കസ്റ്റമര് അവിടെ വരുമ്പോള് നിങ്ങളവിടെ ഇല്ലെങ്കിൽ അതു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും പിന്നെ ഞങ്ങള്ക്കു കിട്ടണ ഞങ്ങള് ഫ്രീ ആവുന്ന ഒരു ടൈം പോലെയിരിക്കും പിന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ നടക്കുകയുള്ളൂ ചിലപ്പോള് അതു കുറേ നാളത്തേക്കു നീങ്ങും അപ്പോള് ഞങ്ങള് ഫ്രീ ആവുന്ന പോലെ ഇരിക്കും പിന്നെ ആ വെരിഫിക്കേഷൻ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങളേത് ടൈമിലാണോ വീട്ടിലുണ്ടാവുന്നത് ആ ഒരു ടൈം നിങ്ങള് പറയുക നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചു ഞങ്ങള്ക്കു വരാവുന്നതാണ് അപ്പോള് അതിനു വേണ്ടിയിട്ടാണ് കെട്ടോ ഓക്കെ